അസ്സലാമു അലൈക്കും വാ അലൈക്കും ട്രാവൽ ഏജൻസി അല്ലെ ഇങ്ങളുടെ പേര് എന്തായിരുന്നു ആ ഓക്കെ ആ ഞാനും എൻ്റ ഫാമിലിയും ഈ വീക്കെൻഡില് കക്കാടംപൊയില് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു റിസോർട്ട് വേണ്ടി ഓഗസ്റ്റിലേക്ക് ഒര് രണ്ട് ദിവസം ഫാമിലിയായിട്ട് താമസത്തിനു പറ്റിയ റിസോർട്ട് ഉണ്ടോ ഇല്ല ഇല്ല അതൊന്നും പ്രശ്നം ഇല്ല നിങ്ങള് റേറ്റ് എല്ലം എങ്ങനെയാണ് വരുന്നത് എങ്ങനെ പെർഡേയാ ണയൻ തൗസൻറ്റാ റിസർച്ച് ട്രക്കിംഗ് ഉണ്ടോ ആ ഓക്കെ ഓക്കെ എന്നാല് ഞാൻ ഇതൊന്ന് കൺഫേം ചെയ്യാന് വിളിക്കാം കുറച്ച് കഴിഞ്ഞിട്ട്